നമ്മള് തുടർച്ചയായിട്ട് ഈ കാലത്ത് നമ്മള് കണ്ട് വരുന്നൊരു പ്രശ്നമാണ് ചില കളികളോടുള്ള അമിതമായ ഭ്രമം എത്ര മാത്രം അപകടകരമാണെന്ന് നമ്മള് കാണാറുണ്ട് നമ്മുടെ എന്താണ് ചെറിയ ചെറിയ കുട്ടികള് ചെറിയ കടികൾ കളികളോടുള്ള ഒരു ഭ്രമത്തിനോട് മൂലം എന്താ ആത്മീയത്ത ആത്മഹത്യ ചെയ്യുകയും അല്ലാതെ അന്ന് അവരുടെ മൈൻറ്റുകളെ അവർക്ക് പല തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും വരും നമ്മള് ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നമ്മള് കണ്ട് വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള കളിയാണ് നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മള് കണ്ട് വരുന്ന തരത്തിലൊരു കളിയാണ് നമ്മൾ ഈ പബ്ജി എന്ന് പറയുന്ന അതുപോലെ ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് ഗെയിംസ് അപ്പം അത്തരത്തിലുള്ള കളികള് അപ്പം ഈ പബ്ജി ഒക്കെ ഏറ്റവും കൂടുതല് എനിക്ക് തോന്നുന്നു കുട്ടികളില് സ്വാധീനിച്ചൊരു സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയമെന്ന് തന്നെ പറയണം കാരണം ലോക്ക്ഡൗൺ സമയത്ത് ആരും തന്നെ എങ്ങോട്ടും പോകുന്നില്ല വീടുകളിൽ തന്നെ ഇരുന്നു പക്ഷേ പക്ഷേ ആ ഒരു എന്താണ് കളികള് അവർക്ക് സന്തോഷം നൽകി എന്ന് നൽകിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല വളരെ അധികം സന്തോഷം കാരണം നമുക്കറിയാം എല്ലാം നല്ലതാണ് ഒരു പരിധി വരെ എല്ലാം നല്ലതാണ് ഈ പരിധിയിൽ കൂടുതൽ ഒട്ടും നമുക്ക് കടന്ന് പോകുമ്പഴാണ് അത് അപകടകരമായി മാറുന്നത് അപ്പം അത്തത്തിലവർക്ക് ഈ ഒരു ഗെയിമ് എന്താണ് നല്ല രീതിയില് ഒരു പരിധി വച്ച് യൂസ് ചെയ്ത് ഉപയോഗിച്ച ആൾക്കാരുമുണ്ട് അതല്ലാതെ ആ അമിതമായിട്ട് അതിനൊരു ഫ്രെമം കൊടുത്ത് എന്താണ് അവരുടെ ഒരു ജീവിതം അവസാനം നശിപ്പിക്കുകയും അല്ലെങ്കിൽ എന്താണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കയും അക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമ്മള് കണ്ടിട്ടുണ്ട് എത്തിചേരുന്നത് അതുപോലെ എന്താണ് അതുപോലൊരു കാര്യമാണ് ഈ ഈ പറഞ്ഞ ബ്ലൂ വെയിലെന്ന് പറഞ്ഞ ഗെയിം നമുക്കറിയാം ബ്ലൂ വെയിലെന്ന ഗെയിം കളിച്ച് ഇതുപോലെ ഒരുപാട് ആൾക്കാര് അവസാനം സുയിസൈഡിലോട്ട് അല്ലെങ്കിൽ ആത്മഹത്യയിലോട്ട് പ്രേരിപ്പിക്കപ്പെടുന്നത് നമ്മള് കണ്ട് വരുന്നതാണ് അപ്പം അത്തരത്തിലൊരു ഗെയിമാണ് ഈ പറഞ്ഞ നമ്മുടെ ബ്ലൂ വെയിലെന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് പബ്ജി പബ്ജി എന്ന് പറഞ്ഞ ഗെയിം എന്താണ് കുട്ടികളിൽ വളരെ അധികം സ്വാധീനം ചെലുത്തി നിന്ന വളരെ അധികം അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് വളരെ പെട്ടെന്നായിരിന്നു ആ ഒരു കളിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് പക്ഷേ അത് ലോക്ക്ഡൗണിൻ്റെ സമയത്തത് വളരെ അധികം ആൾക്കാർക്കൊരു ആശ്വാസം അത്പോലെ തന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ശേഷം അതിനോടൊള്ളൊരു ഭ്രമം മൂലം അത് അപകടകരമായ രീതിയിലോട്ട് എന്താണ് നയിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മള് കണ്ടിട്ടുണ്ട് അപ്പം അതുപോലുള്ള ഗെയിംസും അതുപോലുള്ള കളികളും വളരെ അധികം അപകടകരമാണ് അതായത് എല്ലാം നമ്മ ഒരു പരിധിയിൽ കൂടുതല് ആയിക്കഴിയുമ്പഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് ഫിൽ ചെയ്യുക ബുദ്ധിമുട്ട് ഫിൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു അപകടത്തിലോട്ട് പോകുകയാണ് കാരണം എന്താണ് നമ്മുടെ ഒരു മൈൻഡും കാര്യങ്ങളും എല്ലാം നമ്മള് ഡെഡ് ആക്കുകയും അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കാതിരിക്കുകയും ഫുള്ള് ഒരു ഗെയിം ആ ഒരു കളി കളിക്കണം എന്ന് പറഞ്ഞ് ഇരിക്കുകയും എന്താണ് ഭാവി തുലയ്ക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനം നശിപ്പിക്കുകയും അങ്ങനെ ചെയ്യുക അപ്പം അത്തരത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് നടുക്കിയൊരു ഗെയിമാണ് ഞാൻ ഈ പറഞ്ഞ ബ്ലൂ വെയിലെന്ന് പറഞ്ഞ ഒരുപാടധികം ആത്മഹത്യകള് ഈ ഒരു ഗെയിം കളിച്ച് എന്താണ് അതായത് അപകടകരമായ രീതിയില് കളിച്ച് കളിച്ച് എന്താണ് വാഹന അപകടം ഉണ്ടാക്കുക അത്പോലെ സ്വന്തമായിട്ട് നമ്മളെയും കൊണ്ട് തന്നെ നമ്മളെ പേടിപ്പിക്കുന്ന നമ്മളെ പേടിപ്പിച്ച് നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കുക അതരത്തിലുള്ള എന്താണ് കളികളൊക്കെ വളരെ വളരെ അധികം അപകടകരമാണ് അപ്പം അങ്ങനെ അപ്പം അത്തരത്തില് നമ്മള് കണ്ട് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത്പോലെ ഇതുപോലുള്ള കുറെ കുറെ കുറെ എന്താണ് കളികളുണ്ട് നമ്മളെ മനുഷ്യനെ വളരെ അധികം സ്വാധീനിച്ച വളരെ അത് കാരണം എല്ലാം നല്ലതാണ് അത് ഒരു ടൈം ലിമിറ്റൊക്കെ വച്ചിട്ട് നമുക്ക് കളിക്കാമെന്നുണ്ടെങ്കിൽ അത് ഒരു കുഴപ്പം ഇല്ല കാരണം എന്താണ് നമ്മള് മൈൻഡിനെ ഒക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റിയ നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മള് ഗെയിംസൊക്കെ കളിക്ക കളിക്കുക എന്നൊക്കെ പറയുന്ന ത് പക്ഷേ അത് അ അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലാണ് നമ്മൾ ഈ പറയുന്ന ഗെയിംസും ഗെയിംസായാലും കളികളായാലും അധികമായി കഴിഞ്ഞ അത് നമ്മുടെ അപകടകരമായ സാഹചര്യത്തിൽ നമ്മള് നീങ്ങും നയിക്കുകയും നമ്മള് ഈ എടക്കും ആ ഒരു പത്രവാർത്ത കാണാൻ ഇടയായി അതായത് എന്താണ് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ് എന്താണ് ആത്മഹത്യ ചെയ്ത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തൊരു സാഹചര്യം നമ്മള് കണ്ടു കാരണം അതിനർത്ഥം എന്താണ് അവരെ അത്രത്തോളം ആ ഒരു കളി അവരെ അത്രത്തോളം ആ ഒരു കളി സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ആ ഒരു ആ ഒരു കളിയുടെ ക കളിയുടെ പേരിൽ ആ പയ്യന് നഷ്ടപ്പെട്ടത് അവൻ്റെ ജീവനാണ് അപ്പം അവന് അവിടെ നഷ്ടങ്ങളുണ്ടായത് അവനും അവൻ്റെ കുടുംബത്തിനും മാത്രാണ് അപ്പം അത്തരത്തിലോട്ട് അപകടകരമായ രീതിയിലോട്ട് എന്താണ് നമ്മളൊരു കാര്യത്തിന് നമ്മള് അധികം ഭ്രമം കൊടുത്ത് കഴിഞ്ഞ അത് നമ്മളെ ജീവിതം തന്നെ അവസാനം നശിപ്പിക്കാനുള്ള സാധ്യത കൂടലാണ് അപ്പം അതാ പറഞ്ഞത് അപ്പം അത്തരത്തില് നമ്മള് വളരെ അധികം ശ്രദ്ധയോടെ വേണം ഈ ഒരു കളികളോടൊക്കെയുള്ള താല്പര്യം കാണിക്കുകയും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യേണ്ടത്